ഹാലോ ഞാൻ നിങ്ങളുടെ ക്യാബ് ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് ദിവസത്തെ ട്രിപ്പിന് വേണ്ടീട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടും ഫാമിലിയും അടക്കം ഇരുപത് പേരടങ്ങുന്ന ടീമിന് വേണ്ടീട്ടാണ് ഈ ക്യാബ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ് നിങ്ങളുടെ ക്യാബിനും ക്രൂ ആയിട്ട് ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഞാന് എന്തൊരാവശ്യത്തിനും ഞാൻ നിങ്ങളുടെ ക്യാബിനെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ആൻഡ് നിങ്ങൾ പറഞ്ഞൊരമൗണ്ട് ഈ മുപ്പത്തി അയ്യായിരം രൂപയാണ് അതൊക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നി ഒരു മുപ്പതിനായിരം രൂപയൊക്കെയാണെങ്കില് ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു നിങ്ങള് ഇങ്ങനെ കുറച്ചൊരു കിഴിവ് തരും എന്ന് ഞങ്ങള് കുറച്ച് എക്സ്പെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണെന്ന് പറഞ്ഞല്ലോ ഇത്രേ വരേയും ഒരു അഞ്ച് ദിവസത്തെ ട്രിപ്പാകുമ്പോൾ ഞങ്ങൾക്ക് കൂടുതല് എക്സ്പെൻസിവാകാൻ ഞങ്ങള് ആഗ്രഹിക്കണില്ല അപ്പോൾ ഈ ഊബ് ഈ ക്യാബ് എന്ന് ക്യാമ്പിൻ്റെ ഒരു എമൗണ്ട് കുറച്ച് കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രയെ ഏറ്റവും കൂടുതൽ ഹെൽപ് ചെയ്യുവായിരുന്നു സോ നിങ്ങളെ എന്തു പറയണ്ടേ ഒരു കിഴിവ് ഞങ്ങള് എക്സ്പെറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന്